തൊഴിലവസരങ്ങൾ ഭയങ്കരമായി ഈ ഒരു മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഇപ്പോൾ ഈ കമ്പ്യൂ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണ് കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ ജോലികൾ ഇപ്പോഴുള്ള ജോലികളിലൊരു എൺപത് ശതമാനം ജോലികളും ഈ ഒരു മേഖലയെ തന്നെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഐ ടി ഫീൽഡിലാണെങ്കിലും ടെക്ക് ഫീൽഡ് ആണെങ്കിലും മൊത്തം ഈ ഒരു മേഖലയിലാണ് മേ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പേപ്പറിൽ എഴുതി അങ്ങനെയായിരുന്ന് നമ്മുടെ ജോലി ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് യന്ത്രങ്ങളാണ് എന്ന് ഇതിൽ എല്ലാം വർക്ക് ചെയ്യുന്നതും എല്ലാം യന്ത്ര യന്ത്രങ്ങൾ കൊണ്ടുള്ള പണിയാണ് കമ്പ്യൂട്ടറുമാണ് മൊത്തം അപ്പോൾ ഇത് കുറേയേറെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ജോലിയെ എന്നാൽ പോലും കുറച്ചധികം സഹായം കൂടുതൽ ആവുന്നതുകൊണ്ട് ഈ ആളുകളുടെ ജോലി മനുഷ്യരുടെ ജോലി കുറയ്ക്കുന്നത് കൊണ്ടുതന്നെ മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഇതിൽ കൂടുതലാണ് കാരണം നമുക്ക് ഇപ്പം അറിയാവുന്നത് പോലെ തന്നെ പുതിയതായി വന്ന സാങ്കേതിക വിദ്യകളാണ് എ ഐ എന്നൊക്കെ പറയുന്നത് അത് വന്നതോടെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യൻ സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു എ ഐ എന്ന് പറയുന്നൊരു ആ സാധനം സെക്കൻറുകൾ കൊണ്ട് നിമിഷനേരം കൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതൊരു ജോലി ആക്കിയ ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടമാകുന്നു അവരുടെ ജോലി അവരുടെ ജോലി അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഈ ജോലി കൊടുക്കുന്ന ആളുകൾ കൂടുതലായി ഈ ഒരു എ ഐ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടുതന്നെ ഇത് മറ്റുള്ളവർക്ക് അതായത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭീഷണി തന്നെ ആണ് പക്ഷേ എന്നാൽ പോലും ഇതൊരു നല്ല കാര്യമാണ് സമയം കുറച്ച് എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കും എന്ന് ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അതായത് ഈ ഒരു എ ഐ ഉപയോഗിച്ച് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ മനുഷ്യൻ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ഈ ഒരു സാധനം ചിലപ്പോൾ ഒരു അര മണിക്കൂറോ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് പോലും ചെയ്ത് തീർക്കും അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയ കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ രീതി മാറും നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈസി ആവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അതും ഒരു പോസിറ്റീവ് ആണ് എന്നാൽ പോലും സെയിം രീതിയിൽ തന്നെ നെഗറ്റീവും ഉണ്ട് രണ്ട് രീതിയിലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് എന്നാൽ പോലും മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും വരുത്തുന്നില്ല ഇതുവരെ വരുത്തുന്നില്ല പക്ഷേ ഭാവിയിൽ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെയും ബാധിക്കും ജോലി ഇല്ലാതാവും ഒന്നും ചെയ്യാൻ പറ്റാതാവും എല്ലാം ഈ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോവാൻ നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജോലി എളുപ്പമാക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ജോലി നഷ്ടമാക്കുകയും ചെയ്യും